വാർത്തയിൽ കാണ് കാണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാലും നല്ല വാർത്താ ചാനലുകളും വാർത്താപരമായ മീഡിയ ഒക്കെ നമുക്ക് നോക്കിയ നമുക്കാ വാർത്തയുടെ ഒരു ഇത് വെച്ച് നമുക്ക് മനസ്സിലാവുന്നതാണ് ആ വാർത്ത പല ടൈപ്പുണ്ട് ഇപ്പം ഈ ചില വ്യാജ വ്യാജ ന്യൂസ് ചാനലുകളുണ്ട് വാർത്താ മാധ്യമങ്ങള് നമുക്ക് ഫോണുകളിലൊക്കെ കാണിക്കുന്നത് ഭൂരിഭാഗവും വളരെ മോ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങള് വരെ വാർത്താ ചാനലുകളിൽ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ടിവിയിലൊക്കെ കാണിക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് ഒട്ടുമിക്കതും വളരെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ് ന വളരെ പ്രശസ്തമായ വാർത്താ ചാനലുകൾ ളുമൊക്കെ മാധ്യമങ്ങളൊക്കെയാണ് നമുക്കത് സുഖമായിട്ട് നമുക്ക് വി വിശ്വസിക്കാവുന്നതാണ് സുഖമായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഇത് വച്ച് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വാർത്തയിൽ കാണിക്കുന്നത് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്നാലും ഒട്ടുമിക്ക ന്യൂസൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുവാണേൽ എന്താ ഇപ്പോൾ ഒരാള് ഒരാളിപ്പോൾ ഒരു നമ്മള് ആ ആൾക്കാരെ വി വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളും നമ്മളിവിടെ ഇപ്പോൾ നമുക്ക് ഈ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന മാധ്യമത്തിൽ നമുക്ക് കാണാവുന്നതാണ് വളരെ തട്ടിപ്പ് വ വളരെ തട്ടിപ്പായിട്ടുള്ള വാർത്തകളൊക്കെ ഇതിൻറ്റാത്ത് നമുക്ക് കാണുന്നതാണ് പക്ഷേ എന്താ പറയുക വളരെ നമുക്ക് നമുക്കൊട്ടും അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റാത്ത തരത്തിലുള്ള വാർത്തകളൊക്കെ വളരെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് ഇതില് കാണിക്കുന്നതാണ് പലപ്പോഴും ഞാൻ ഈ വാ ഈ ഒരു തട്ടിപ്പായിട്ടുള്ള വാർത്തകളെൻ്റെ ശ്രദ്ധയിൽ പ്പെട്ടിട്ടുണ്ട് അതായത് അത് കൂടുതലും നമുക്ക് ഈ ഫോൺ അതായത് സോഷ്യൽ മീഡിയ എന്ന മാധ്യമത്തിൽ കൂടിയാണ് അതായത് നമ്മുടെ ഫോണിലുള്ള മാധ്യമങ്ങളിൽ കൂടിയാണ് ഞാന് ഏറ്റവും കൂടുതൽ ടിപ്പുകള് ഞാൻ കണ്ടേക്കുന്നത് ഒരു ഒരു ഒരു ഉദാഹരണം പറയുവാണേൽ ഇന്ന് ഈ വിലക്കുറവിൽ ഫോൺ കിട്ടും വിലക്കുറവിൽ വാച്ച് കിട്ടും അങ്ങനെ ഉള്ള പല പല പല കാര്യങ്ങളും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അത് എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അതില് അത് അതായത് അതിൻ്റെ തട്ടിപ്പിൽ ഏർപ്പെട്ടിട്ടു ഉള്ളവർ തട്ടി തട്ടിക്കപ്പെട്ടിട്ടും ഉണ്ട് അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിൽ കൂടുതലുണ്ട് എൻ്റെ ഒന്നിലധികം കൂട്ടുകാരിതേപോലെ പല തട്ടിപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട് അത് ഏർപ്പെട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന മാധ്യമങ്ങളിലൂടെയാണി പല തട്ടിപ്പുകളും നടന്നേക്കണത് പിന്നെ വ്യാജ വാർത്തകളിപ്പം ഒരു ഒരുരു ഉദാഹരണം പറയുകയാണേൽ ഇപ്പം നമ്മുടെ നമ്മുടെ ജില്ലയിൽ നാളെ വെള്ളപ്പൊക്കം മൂലം ആണ് പൊതു അവധി പ്രഖ്യാപിച്ചു എന്നുള്ള പല വാർത്തകളും ആ വാർത്തകളിൽ തന്നെ അത് ആൾക്കാരെന്നിട്ട് പിള്ളേരൊക്കെ എന്നിട്ട് സ്കൂളിൽ വരെ പോയിട്ടുണ്ട് ആ വാർത്തകളുടെ ഇത് വെച്ച്

ഇത് സമൂഹത്തെ ബാധിക്കുന്നത് വളരെ വളരെഅധികം കഷ്ടമായിട്ടാണിതൊക്കെ ബാധിക്കുന്നത് ഇപ്പം ഇപ്പം നമ്മള് പറയുവാണ് ഒരു ചങ്ങനാശ്ശേരിയിൽ പെരും വെള്ളപ്പൊക്കം എന്നുള്ള വാർത്തയാണ് വന്നത് ഇപ്പം നമുക്ക് ഇപ്പം ഒരു ഉദാഹരണമാണ് ഈ ഇത് ഈ വെച്ച് നോക്കുവാണേൽ ഇപ്പം ഒരു ചങ്ങനാശ്ശേരിയിലേക്കൊരു യാത്ര പോകുന്ന ഒരാളാണ് ഈ ചിലപ്പോൾ ഒരു ഒരത്യാവശ്യ യാത്രയായിരിക്കും യാ അത്യാവശ്യ യാത്രയിൽ വെച്ച് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ അത്യാവശ്യ വാ അത്യാവശ്യക്കാരൊന്നും ഇതിലേക്ക് പോകത്തും കൂടിയില്ല അവർ അത്യാവശ്യം വരെ മാറ്റി വെക്കും ആ അത്യാവശ്യം ചിലപ്പം എന്തേലും മെഡിക്കൽ കേസസോ അങ്ങനെയൊക്കെ പരമായിട്ടുള്ള ബന്ധായിട്ടുള്ള കേസൊക്കെ ആയിരിക്കും അത് വളരെ നമ്മളെ വളരെ മോശമായിട്ടായിരിക്കും നമ്മളെ അത് ബാധിക്കണേ വളരെ ഇപ്പം എന്താ പറയുക അങ്ങനെ പല പല പല തരത്തിലുള്ള വാർത്തകളുണ്ട് അങ്ങനെയായി പിന്നെ സ്കൂൾ കാലഘട്ടങ്ങളിളേറ്റവും കൂടുതൽ കണ്ട വ്യാജ വാർത്തയായിരുന്നു ഈ വെള്ളപ്പൊക്കം മൂലം ഉള്ള പൊതു അവധി പിന്നെ ഉള്ള തട്ടിപ്പാണ് ഓൺലൈൻ കോഴ്സുകളായിട്ടുള്ള തട്ടിപ്പുകളുണ്ട് ഈ ഓ ഓൺലൈൻ കോഴ്സുകൾ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമാണ് നമ്മള് നാം സമ്പാദിച്ച കാശും കാശും പണവും ഒക്കെ ഈ കോഴ്സിന് വേണ്ടി നമ്മൾ ചിലവാക്കും എന്നിട്ടിവര് നമ്മൾ തട്ടിക്കും അതൊക്കെ നമുക്കിപ്പം പറ്റിച്ച നമ്മുടെ സമ്പത്ത് ധാന നഷ്ടം മാനഹാനി എല്ലാ തരത്തിലുള്ള മാനക്കേടുകളും നമുക്ക് ഈ ഇതിലുണ്ട് പിന്നെ കല്യാണ തട്ടിപ്പുകൾ കല്യാണ തട്ടിപ്പ് നമ്മള് ഈ ഓ ഓൺലൈൻ മാധ്യമങ്ങളിൽ കല്യാണ താല്പര്യം നമുക്ക് പറഞ്ഞ് പക്ഷേ ഇത് ഓൺലൈൻ തട്ടിപ്പുകളിൽ കൂടെ വളരെ നമ്മള് നമുക്കിഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ സെലക്റ്റെയ്യും പക്ഷേ അത് വളരെ തട്ടിച്ച് നമ്മളെ പറ്റിച്ച് പിടിക്കുന്നതൊക്കെ ഇത് കാരണം നമുക്ക് മൊത്തത്തിലിതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുല ഇതല്ലേ എന്നാലും ഇപ്പം ടിവിയിലുള്ള മാധ്യമങ്ങളൊക്കെ നമുക്ക് ഒട്ടുമിക്കതും വിശ്വസിക്കാവുന്നതെന്നാണ് എൻ്റെ ഒരഭിപ്രായം